ശെരിക്കും പഴയ തലമുറക്കാര് തന്നെയാണ് കൂടൽ മതവിശ്വാസമുള്ളത് കാരണം പണ്ട് കാലങ്ങളില് ഏറ്റവും കൂട്തല് അവര് ത്യാഗങ്ങള് സഹിച്ച് കുടുംബത്തെ മൊത്തം ഊട്ടി ഊട്ടി ഉണർത്തി അവര് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിലൊക്കെ ആകെ ഉണ്ടായിരുന്നത് അവരുടെ പ്രാർത്ഥനാ ജീവിതം തന്നെയാണ് കാരണം എന്റെ വല്ലിയമ്മച്ചിയും വല്ലിയപ്പച്ചനുമൊക്കെ പണ്ട് കാലം മുതൽ ചെയ്തിരിക്കുന്നത് അവര് വെളുപ്പിനെ എണീക്കുമ്പഴെ തന്നെ രണ്ട് പേരുടെ കൈയ്ക്ക് പിടിച്ചിരുന്ന് കൊണ്ട് പ്രാർത്ഥിച്ച് കുരിശ് വരച്ചതിന് ശേഷമാണ് അമ്മച്ചി അടുക്കളയിൽ കയറാറുള്ളത് തിരിച്ചും അതുപോലെ വൈകുന്നേരം ഇപ്പം രാത്രി കാലങ്ങളിലാണെങ്കിലും അമ്മച്ചിയും അച്ചായനും കൂടെ അടുത്തിരുന്നു അമ്മച്ചിയും അച്ചായനും പരസ്പരം തലയിൽ ഒക്കെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ കണ്ട് വളർന്നൊരു കുട്ടി തന്നെയാണ് ഞാന് അപ്പോൾ ആ ഒരു ജീവിതശൈലി കണ്ടത് കൊണ്ട് നമ്മുടെയും കുടുംബങ്ങളിലേക്ക് വരുമ്പം നമ്മളും ആ പ്രാർത്ഥന ശൈലി തുടരണം എങ്കിലും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് പലതും അതുപോലെ തുടരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇന്നാണെങ്കിലും എന്ത് കാരണങ്ങള് നമുക്ക് ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മളൊന്ന് അമ്മച്ചിയോട് നമ്മുടെ അമ്മച്ചിയോട് പറയും അമ്മ ഒന്ന് പ്രാർത്ഥിച്ചോണം ഞാൻ ഇന്ന കാര്യത്തിന് പോകുകയാണ് പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവര് പോകുന്നു വരുന്നു എന്തിന് പോകുന്നെന്നൊ അല്ലെങ്കിലെന്ത് എന്ത് കാര്യം സാധിക്കണമെന്നോ ഒന്നുവില്ല പക്ഷേ അതൊക്കെ അപേക്ഷിച്ച് പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനാ ജീവിതമാണ് ആ കുടുംബത്തിൽ അവരുടെ ശക്തിയും അവരുടെ ബലവും കുടുമ്പത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമെല്ലാം അവരുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് അവര് ഉണ്ടാക്കിയതാണ് ഏത് പ്രശ്നങ്ങള് വന്നാലും അവരൊറ്റ കെട്ടായിട്ട് നിൽക്കുന്ന ഒര് കുടുംബമായിരുന്നു ഇന്നത് പോയിട്ടത് അണു കുടുംബമായിട്ട് മാറുന്നു പണ്ട് കാലങ്ങളിലൊര് കുടുംബത്തിലോട്ട് പത്തും പന്ത്രണ്ടും മക്കളെന്ന് പറഞ്ഞാൽ അവര് ഒരേ രീതിയിൽ സന്തോഷത്തില് വളർന്ന് വരുന്ന സാഹചര്യങ്ങളായിരുന്നു ഇന്ന് ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾക്ക് പോലും പരസ്പരം സ്നേഹമോ ഐക്യവുമില്ലാതെ കാണുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ മൂല കാരണം എന്ന് പറഞ്ഞാൽ ആ കുടുംബങ്ങളിലെ പ്രാർത്ഥനാ ജീവിതം തന്നെയാണ് പ്രാർത്ഥനയുടെ കുറവാണ് ഒര് കുടുംബത്തിലെ എല്ലാ ശിഥിലീകരങ്ങൾക്ക് കാരണം എന്ന് ഞാൻ മനസിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പണ്ടത്തെ ചേ തലമുറയെ അവരുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടാണ് ആ കുടുംബത്തിന്റെ പാരമ്പര്യം കൊണ്ടാണ് അവരിൽ നിന്നും വന്നിരിക്കുന്ന അണുകുടുമ്പങ്ങള് ഇന്നും എന്തെങ്കിലും നിലക്ക് ഉറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന താ പണ്ട് മുതൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അത്കൊണ്ട് പണ്ട് കാലത്തുള്ള ആൾക്കാരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അടിത്തറയുണ്ടെന്നും അവരാണ് നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുവൊക്കെ സാന്നിധ്യമായിട്ട് നിൽക്കുന്നതെന്നും ഞാൻ മനസിലാക്കിയിരിക്കുന്നു അത് കൊണ്ട് മതവിശ്വാസികളായിരിക്കുന്നവര് ഇന്നത്തെ ചെറുപ്പകാരുടെ ഇന്നത്തെ തലമുറ വളരെ ശോചനീയാവസ്ഥയാണ് കാരണം അവർക്ക് മതങ്ങള് പോലും വേണ്ട എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത് അതുകൊണ്ട് എല്ലാവരും കുടുംബങ്ങളായി എല്ല എല്ലാ കുടുംബങ്ങളും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നല്ല പ്രാർത്ഥനാ ജീവിതവും നല്ല മതവിശ്വാസും ആ കുടുബത്തിലുണ്ടായിരിക്കട്ടെ എന്ന് ഞാനാശംസിക്കുന്നു